നല്ല മൃഗം ആരോഗ്യമുള്ള മൃഗത്തിന്റെ എന്നു പറഞ്ഞാൽ നല്ല പശുവാണെങ്കിൽ നല്ല ആരോഗ്യമുള്ളൊരു പശു നല്ലതാണെങ്കിൽ അത് നമുക്ക് നല്ലതായിട്ട് പാല് തരും നമുക്ക് നല്ല കൊഴുപ്പുള്ള നല്ല പാലായിരിക്കും അത് തന്നെയല്ല നമ്മൾ ചിലപ്പം അഞ്ചു ലിറ്ററെന്ന് പറയുന്നത് ചിലപ്പം നമുക്ക് നല്ലതാണെങ്കിൽ ചിലപ്പം പിറ്റേ ദിവസം നമുക്ക് എട്ടു ലിറ്ററ് പാൽ വരെ കിട്ടാനുള്ളതുണ്ട് മാക്സിമം അഞ്ചാണെങ്കിൽ ചിലതിന് പത്തും പന്ത്രണ്ട് ലിറ്റർ പാൽ വരെ കിട്ടുന്നുള്ളതുണ്ട് കോഴിയാണെങ്കിൽ നല്ല കോഴിയും നല്ല ഇതുമാണെങ്കിൽ നമുക്ക് ഡേയ്ലി മുട്ട കിട്ടും ചിലതാണെങ്കിൽ മുട്ടയും ഇടത്തില്ല നെയ്യും കയറി മുറ്റി നിൽക്കും അതുകൊണ്ട് നല്ലയിനം കോഴികളാണെങ്കിൽ നമുക്ക് നല്ല മുട്ട നല്ല മാംസം ഇതെല്ലാം തരും ആടായാലും പശുവായാലും നല്ലയിനം പശുക്കളുമുണ്ട് ആടുകളുമുണ്ട് അതിൽ നല്ലയിനം ആടുകളാണെങ്കിൽ നമുക്കതിന്റെ കുട്ടികളെത്തന്നെ കൊടുത്താൽ ഇനം അനുസരിച്ച് നമുക്ക് വില കിട്ടും പശുക്കിടാവിന്റെ ആണെങ്കിൽ നല്ലയിനം ശങ്കര അങ്ങനെ കുറേയിനം തിരിച്ച പശുക്കളുണ്ട് ആടുകളുണ്ട് ആ ആടുകളെയൊക്കെ വച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഇനം തിരിച്ച് നമുക്ക് ആടുകൾക്കും പശുകൾക്കും ഒക്കെ നമുക്ക് നല്ല നല്ലതായിട്ട് നല്ല ഇതിൽത്തന്നെ നമുക്ക് വിൽക്കാൻ പറ്റും നല്ലയിനമായിട്ട് അല്ലാതെ നമ്മൾ സാധാരണ ഇതാണെങ്കിൽ അതിന് നമുക്ക് പാലും കാണത്തില്ല ആ ഇനത്തിനൊന്നും വിലയുമില്ല അപ്പം നമ്മൾ വളർത്തുന്നത് നല്ലയിനം പശുക്കളെ നല്ലയിനം ആടുകളേയും തിരിച്ച് വളർത്തിയാൽ നമുക്ക് ഒരൂ കൃഷിക്കാരനെന്നു അവർക്കാണൊര് ഫാം നടത്തുന്നവർക്കാണ് നല്ല രീതിയിൽ ജീവിച്ച് പോകാനുള്ള അദായം നമുക്ക് കിട്ടുന്നതാണ് അത് നല്ല നല്ല നല്ല രീതിയിൽ വച്ച അങ്ങനെയുള്ള പശുക്കളെ ആടിനെയൊക്കെ ആൾക്കാർ ചോദിച്ച് വന്ന് മേടിക്കാൻ വരുന്ന ആൾക്കാരുണ്ട് നല്ല ഇനത്തിൽ ഇനത്തിലുള്ള ആ നമ്മളായാലും ഇന്ന ഇനത്തെയല്ലെ നമ്മളന്വേഷിച്ച് എവിടെയെല്ലാം പോയി നമ്മൾ മേടിക്കുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടാഞ്ഞിട്ടൊന്നുമല്ല നല്ലയിനം ആ പശുവാണെന്ന് പറയുമ്പം അതിന് നല്ല പാൽ കിട്ടും അതാണ് മെയ്നായിട്ടും നോക്കുന്നത് ഇനം ഇനമെന്ന് തിരിക്കുന്നത് നമുക്ക് പാലാണ് മെയിന് നല്ലയിനം പശുക്കൾക്ക് നല്ല പാൽ കിട്ടും അല്ലെങ്കിൽ നല്ലയിനം ആടുകൾ അതിന്റെ കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല പാൽ കിട്ടും അങ്ങനെയാണ് നമ്മൾ ഇനം വച്ച് നോക്കുമ്പം അങ്ങനെ നല്ല ഇതിൽ നമ്മൾ മേടിച്ച് നമുക്ക് കാശ് കിട്ടും നല്ല ഇതാണ്